നമ്മുടെ അടുത്തിപ്പോൾ പല കാലാവസ്ഥയിലും വളരുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ചെടികളുണ്ട് ഇപ്പോൾ ഡാലിയയൊക്കെ ആണെങ്കിൽ മഴക്കാലത്താണ് കൂടുതലും പൂവിടുക അതൊരു അങ്ങനെയാണ് അതൊരു മഴക്കാലം ടൈമാണ് കൂടുതലും പൂവിട്ട് ഞാന് കാണുന്നത് മെയ്മാസ റാണിയൊക്കെ മഴക്കാലത്താണ് കാരണം കണ്ടിന്യൂസായിട്ട് പൂവിടില്ല പിന്നെയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ കാലാവസ്ഥയിൽ നമുക്ക് റോസയൊക്കെ നമുക്ക് വെയിലത്തും കുഴപ്പമില്ലാത്ത രീതിയില് നിൽക്കും ഇന്ഡോര് പ്ലാന്റുകളാണ് വെയിലത്ത് വാടി പോകുന്നതുകൊണ്ട് മഴയെ അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികൾ അപ്പോൾ ഞാന് പൂച്ചെടികളെടുക്കാം പൂച്ചെടിയിൽ വെയിലത്ത് വച്ചാൽ അത് വാടും പക്ഷെ പിന്നെ മഴ ആണെങ്കിൽ അത് ചീയും അപ്പോൾ അതിനു വേണ്ട നമ്മളെന്താ ചെയ്യുക അത് അപ്പോൾ അത് എങ്ങനെ സംരക്ഷിക്കുകയെന്ന് വച്ചാൽ നമ്മൽ പച്ച നെറ്റൊക്കെ കെട്ടി അല്ലെങ്കിൽ വീടിന്റെ തിണ്ണയിലേക്ക് വച്ചിട്ട് നമ്മൾ കോലായിലോട്ടു വെയ്ക്കും കോലായീന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോലായി ഇങ്ങനെ നീളത്തിലായിരിക്കും വരപ്പ് പോലെ ആയിട്ട് അപ്പോൾ അവിടെയൊക്കെ വച്ച് വച്ചാണ് നമ്മൾ ചെടി അങ്ങനെ വയ്ക്കുന്നത് പിന്നെ ഓര്ക്കിഡുകളാണെങ്കിൽ ഓര്ക്കിഡിന് നമ്മൾ ആദ്യം തൊട്ടേ അത് പിന്നെ പുറത്താണ് വച്ച് മഴവെള്ളം ഒക്കെ കൊണ്ടാണ് വളർന്നതെങ്കിൽ കുഴപ്പമില്ല പെട്ടന്ന് ഒരു സുപ്രഭാതത്തില് അത് പുറത്തോട്ടു എടുത്തു വയ്ക്കുന്നതെങ്കിൽ അത് നശിച്ചു പോവും അപ്പോൾ നമ്മൾ എന്താ പറയുക വേണ്ട മുന്കരുതലുകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഭയങ്കര വെയിൽ വേണ്ടാത്ത ആണെങ്കിൽ ഗ്രീന് നെറ്റ് അടിച്ചു കൊടുക്കും വെയിൽ വേണ്ടതൊക്കെ ആണെങ്കിൽ പുറത്തോട്ടു കുഴപ്പമില്ല വെയിലുളളിടത്ത് വയ്ക്കും പിന്നെ മഴ ഒത്തിരി കൊള്ളാ കൊള്ളേണ്ടാത്തതാണെങ്കിൽ അതെടുത്ത് അകത്തോട്ടു വയ്ക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്